സാർ മേ ഐ കം ഇൻ സാർ ഗുഡ് മോർണിംഗ് സാർ ഞാൻ നമ്മുടെ കോളേജിൽ ബി എ ഇംഗ്ലീഷിന് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് എന്റെ പേര് റോസ്മേരി എന്നാണ് സെക്കൻഡ് ഇയർ പഠിക്കുന്ന ആളാണേ സാർ എന്നെ ക്ലാസ്സിൽ നിന്ന് എച്ച് ഒ ഡി പ്രിൻസിപ്പളിനെ കണ്ടിട്ട് വരാൻ എന്നും പറഞ്ഞ് വിട്ടു എന്റെ ഐ ഡി കാർഡ് ഞാൻ ഇന്ന് കൊണ്ടുവരാൻ മറന്നു പോയി സാർ എന്റെ ഐ ഡി കാർഡ് ഞാൻ ബസ്സിൾ പോയപ്പോൾ അതിന്റെ ക്ലിപ്പ് പൊട്ടിയിട്ട് അത് ബസ്സിൽ വെച്ച് നഷ്ടപ്പെട്ട് പോയി ഇല്ല അത് ഉപയോഗിക്കാൻ പറ്റില്ല അതിന്റെ കാർഡ് എന്റെ കയ്യിൽ കാണാതെ പോയി ബസ്സിൽ വെച്ച് കാണാതെ പോയി സാർ അതുകൊണ്ട് ആണ് ഞാൻ ഇന്ന് അത് ഇടാതെ വന്നത് സാറിനോട് പറഞ്ഞു അപ്പോൾ പ്രിൻസിപ്പളിനെ കണ്ടിട്ട് പുതിയ ഐ ഡി കാർഡ് കിട്ടാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് അന്വേഷിച്ചിട്ട് വരാൻ പറഞ്ഞു സാർ എന്റെ കയ്യിൽ നിന്ന് ഐ ഡി കാർഡ് ഞാൻ മനപ്പൂർവ്വം എടുത്തുകൊണ്ട് വരാഞ്ഞത് അല്ല എന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട് പോയതാണ് അപ്പോൾ ഞാൻ ആ ഫൈനിൽ നിന്നും ഒരു ഒരു എക്സെമ്ഷൻ തരുമോ അപ്പോൾ ഞാൻ ഈ അം അമ്പത് രൂപ ഫൈൻ അടച്ചാൽ പിന്നെ എനിക്ക് ഐ ഡി കാർഡിന് വേറെ പൈസ കൊടുക്കണ്ടേ എനിക്ക് ഐ ഡി കാർഡ് അല്ലാതെ തരുമോ ഓക്കെ സാർ അപ്പോൾ എനിക്ക് എത്ര ദിവസത്തിനുള്ളിൽ ഇത് കിട്ടും ഓക്കെ സാർ അപ്പോൾ ഈ റിക്വസ്റ്റ് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ഇനി ഐ ഡി കാർഡ് വരുന്ന സമയത്ത് എന്നെ ഓഫീസിൽ നിന്ന് അറിയിക്കുമല്ലോ അല്ലേ